ആ ഞാൻ ആണെങ്കിൽ ഒരു ഫുട്ബോൾ ട്രെയിനിംഗിന് വേണ്ടിയിട്ടായിരുന്നേ എനിക്കപ്പോൾ അതിലേക്ക് ആ ഓക്കെ ഓക്കെ എനിക്കാണെങ്കിലൊരു ആ ഫുട്ബോളിൻ്റെ ട്രെയിനിംഗിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആ അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞ് തരുവോ ഡീറ്റെയിലായിട്ട് ഇവരെ കളിയിൽ ഏജ് എനിക്കിപ്പോൾ ഇരുപത്

ഓക്കെ ഓക്കെ ആ ഓക്കെ ആ ആ ഓക്കെ

ഓക്കെ ആ എനിക്ക് എനിക്കാണെങ്കിൽ താൽപര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴാണ് ഈ ഒരു അക്കാഡമി കണ്ടത് അപ്പോൾ ഞാൻ എല്ലാം ക്രോസ്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടുതലും ഈ അക്കാഡമിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടാണ് എനിക്ക് താൽപര്യം തോന്നിയത് അതാണ് ഞാൻ ഇപ്പം കോൺടാക്ട് ചെയ്തത് ഇല്ല ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ ഫ്രണ്ട്സ് ജോയിൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ആ ഓക്കെ ഓക്കെ ഓ ഇപ്പം ആ ഓക്കെ ആ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ